അതെ ഞങ്ങളിപ്പോൾ എൽ പി ജി കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് മുമ്പൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് വിറകടുപ്പുകളാണ് വിറകടുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതായത് വിറക് വെട്ടി ശേഖരിക്കണം അതുപോലെത്തന്നെ നമ്മൾ പാചകം ചെയ്യാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കരിപിടിച്ച് വൃത്തിയാക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമുക്ക് മഴക്കാലമാണെങ്കിൽ വിറക് ശേഖരിക്കാൻ തന്നെ വലിയ പാടാണ് വിറക് വിറക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കത്തിക്കാൻ വേഗം എളുപ്പം ആവുള്ളൂ വിറകടുപ്പ് മറിച്ച് ഗ്യാസ് ആണെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാചകം ചെയ്തെടുക്കാൻ പറ്റും പാത്രങ്ങൾ വൃത്തിയാക്കാൻ എല്ലാം വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എന്തുതന്നെ വെച്ച് വേണമെങ്കിലും നമുക്ക് വെറകടുപ്പിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഗ്യാസ് അടുപ്പ് അപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഗ്യാസ് അടുപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതുതന്നെയാണ് അത്യാവശ്യമായി തോന്നുന്നത് പൈസയുടെ കാര്യം കുറച്ച് കൂടുതലാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ജോലി ഭാരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഇടയിൽ നമുക്ക് ഗ്യാസ് അടുപ്പ് തന്നെയാണ് വലിയൊരു സഹായം